അപ്പോൾ എൻ്റെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതെന്താണെന്നു വച്ചു കഴിഞ്ഞാൽ ഞാൻ സാധാരണ പ്ലാസ്റ്റിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുറത്തൊക്കെ വലിച്ചെറിയാണ്ട് എവിടേലും കളക്ട് ചെയ്ത് വയ്ക്കാണ് സാധാരണ ചെയ്യാറ് അത് കത്തിക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന പോലെ ഡിസ്പോസ് ചെയ്യലാണ് സാധാരണ ചെയ്യുക പിന്നേന്നു പറയുമ്പോൾ നമുക്ക് വരുന്ന വേറെ കാര്യങ്ങളന്നൊക്കെ പറഞ്ഞാൽ ചിരട്ട പ്ലാസ്റ്റിക്ക് കുപ്പികള് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മള് പുറത്തിടാണ്ട് പരമാവധി ശ്ര എന്താ പറയുക ശ്രദ്ധിക്കും പിന്നെ വേയ്സ്റ്റും കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്ത് വലിച്ചെറിയാണ്ട് ശേഖരിച്ച് വെക്കുകാന്നുള്ളതാണ് മറ്റൊരു രീതി പിന്നെന്താ പറയുക ദിവസവും വൃത്തി വീടിൻ്റെ പരിസരമൊക്കെ അടിച്ചുവാരി നല്ല ക്ലീനാക്കി വെക്കാറുണ്ട് പിന്നെ ആഴ്ചയിലൊരു രണ്ട് മൂന്നു ദിവസം വീടിൻ്റെ ഉൾഭാഗവും തുടച്ച് വെക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ എന്താ പറയുക മോശമായ രീതിയിലുള്ള എന്താ പറയുക പ്ലാസ്റ്റിക്കൊന്നും നമ്മള് കുഴിച്ചിടുവൊ കത്തിക്കുവൊ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങള് സമൂഹത്തില് വരുന്നുണ്ട് പിന്നെന്താ പറയുക ഇത്രയൊക്കെയാണ് ഞാൻ സാധാരണ വൃത്തിയായിട്ട് പ്രദേശം ചുറ്റുമുള്ള പ്രദേശമൊക്കെ സൂക്ഷിക്കുന്നത് വെള്ളം കെട്ടി കിടക്കാനുള്ള സാഹചര്യമൊന്നും നമ്മളധികം ഉണ്ടാക്കുന്നില്ല